ഇപ്പം നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പം നമ്മുടെ കാലത്ത് അതായത് നമ്മുടെ സംസ്ഥാനത്തൊക്കെ ആരോഗ്യ മേഖലകളിൽ ഒരുപാട് വെല്ലുവിളികളും കാര്യങ്ങളൊക്കെ നേരിടുന്ന ഒരു സമയം തന്നെയാണ് നമക്ക് പിന്നെന്ന് വച്ചിട്ടുണ്ടെങ്കില് ആരോഗ്യ സംരക്ഷണയില് സംരക്ഷണ മേഖലയിലെ ജോലിക്കാർക്ക് ഒക്കെ പരിശീലനവും പിന്തുണയും നൽകുന്നത് പിന്നെന്നു വച്ചിട്ടുണ്ടെങ്കില് പരിശീലനം ഉള്ള ആൾക്കാരൊക്കെ ഒരുപാടുണ്ട് അതൊന്നും നമുക്ക് ഇല്ല എന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ ബി ബി സി ആണെങ്കിലും നഴ്സ് ആണെങ്കിലും ഇപ്പം ലാബ് അസിസ്റ്റൻറ് ആണെങ്കിലും സ്കാനിങ്ങിൻ്റെ ഡോക്ടർ ആണെങ്കിലും എല്ലാം അത്യാവശ്യം നല്ലതുണ്ടെങ്കിലും പക്ഷേ അതായത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലൊന്നും നമുക്ക് വേണ്ട അതായത് മതിയായിട്ടുള്ള പിന്നെ സംരക്ഷണവും കാര്യങ്ങളും ഇപ്പഴും ലഭിക്കുന്നില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വേണമെങ്കിൽ പറയാം വേണെങ്കിൽ ഒരുപാട് വെല്ലുവിളി ഇപ്പം നമുക്ക് പറയാം എമർജൻസിയായിട്ടുള്ള ഒരാളെ കൊണ്ടുപോവുകയാണെങ്കിലും അവരെല്ലാം അതായത് അവരുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾളൊക്കെ ഇതാക്കി എഴുതിട്ടൊക്കെ അവര് പിന്നെ കേറ്റൂള്ളൂ ചിലപ്പോൾ വല്ല തിരക്കാണെങ്കിൽ ഇപ്പം നമ്മൾ നമുക്കെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുപോയ ആളുടെ ജീവൻ എന്ന് പറഞ്ഞാൽ വ വലുത് തന്നെയായിരിക്കും പക്ഷേന്ന് വച്ചിട്ടുണ്ടെങ്കില് അവർക്കെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും അങ്ങനെ അല്ലല്ലോ അവര് ഇഷ്ടംപോലെ ആൾക്കാരെ കാണുന്നുണ്ടല്ലോ അപ്പം ആ ഒരു ഇതൊക്കെ മാറണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസം പരിശീലനം നിലനിർത്തല് ശോഷണം പിന്നെ അങ്ങനെയുള്ള പിന്നെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോക്ക് വരിക ആരോഗ്യ ആശാ ആശങ്കകൾ പ്രമേഹം അങ്ങനെയുള്ള ഒരുപാട് രോഗങ്ങളുള്ള ആൾക്കാരാണ് അപ്പം എല്ലാവരെയും നമ്മൾ ഒരുപോലെ പരിഗണിക്കണം എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം